നമ്മുടെ കേരള സംസ്ഥാനത്ത് സർക്കാർ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം എല്ലാ കാര്യത്തിലും അവകാശം നൽകിയിട്ട് ഉണ്ട് അത് അവർക്ക് ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ ആണെങ്കിലോ മത സ്വാതന്ത്ര്യത്തിന് ആയാലോ സ്വത്ത് നിയമം സംരക്ഷിക്കാൻ ആണെലോ ജീവിക്കാൻ ആണെങ്കിലോ ഇവിടെ നമ്മുടെ കേരളത്തില് ഇപ്പം എന്താ പറയുക ട്രാൻസ് വുമൻസ് ആ ട്രാൻസ് ജെൻറ്റ്സ് അവർക്കൊക്കെ ആ ട്രാൻസിന് വരെ അവരുടേതായ ഒര് വ്യക്തിത്വം അവരുടേതായ ഒര് ഐഡൻറ്റി കാർഡ് നമ്മൾ ഒരു സ്ത്രീ ആണോ പുരുഷൻ ആണോന്ന് ഉള്ളത് പോലെത്തന്നെ അവർക്കും അവരുടേതായ ഒര് ഐഡൻറ്റി കാർഡ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിച്ചിട്ട് ഇണ്ട് അതേപോലെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങള് പക്ഷെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചിട്ടെണ്ടെങ്കിൽ വ്യക്തമായൊരു ധാരണയില് നമുക്ക് എല്ലാവരുടടുത്തും അഭിപ്രായം പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതേപോല മതം എനിക്ക് ഇന്ന് ഇപ്പം ഹിന്ദു ആണ് ഞാൻ എങ്കിൽ നാളെ എനിക്ക് മുസ്ലിം ആകണമെങ്കിൽ ആയിക്കോ അത് എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായം ആണ് അത് ആർക്ക് വോട്ട് കൊടുക്കണം ആരെ ജയിപ്പിക്കുക ജയിക്കൽ ഓരോർത്തരുടെ ഇത് പറ്റും പക്ഷെ ആർക്ക് ഞാൻ വോട്ട് കൊടുക്കണം എന്ന് ഉള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആണ് അപ്പം ഇന്ത്യൻ പൗരന് അവരരവുടേതായ അഭിപ്രായങ്ങൾ ഉണ്ട്